നമ്മളുടെ സ്കുളിലൊക്കെ ചരിത്രത്തെ പറ്റി നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കാറുണ്ട് ഇപ്പോൾ എന്ത് കാര്യ കാര്യങ്ങൾ ആണെങ്കിലും ഇപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്ന കാര്യമാണെങ്കിലും ഇന്ത്യയിൽ വന്ന കാര്യമാണെങ്കിലും എല്ലാം ചരിത്രപരമായിട്ട് വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഞമ്മളുടെ സ്ഥല സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും ഓർത്തിരിക്കാൻ ഉള്ള ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന ചരിത്രം തന്നെയാണ് കാരണം ഒന്നും രണ്ടും അല്ല ഇരുനൂറ് വർഷം രണ്ടു നൂറ്റാണ്ടാണ് അവർ ഇന്ത്യ ഭരിച്ചത് അത് നമ്മുടെ കൈയിൻ്റെ വലുപ്പം പോലുമില്ലാത്ത ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ് ചക്കേൻ്റെ വലുപ്പമുള്ള ഇന്ത്യ ഭരിച്ചത് പക്ഷേ അതിലും കാരണമുണ്ട് അവർക്ക് പോരാടാൻ അവരുടെ കൈയിൽ തോക്ക് എന്ന് പറയുന്ന ആയുധം ഉണ്ടായിരുന്നു നമ്മൾ പോരാടിയത് കത്തിയും കൊണ്ടാണ് വെറും വാളുകൊണ്ട് പോരാ പോരാടിയതാണ് പിന്നെ അവസാന നിമിഷം സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ നേതതി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂർ ആർമിനേയും കൂടി കൂട്ടിയിട്ട് ചേർത്ത് പിടിച്ചപ്പോഴാണ് ലാസ്റ്റ് നിമിഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഇപ്പോഴും ചരിത്രം പറയുന്നത് നമുക്ക് നോൺ വയലൻസിലൂടെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ നോൺ വയലൻസ് അല്ല നേതാജി നേതാജി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇടം നേടാത്ത ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് കാരണം ആയുധം കിട്ടിയപ്പോൾ പാക്കിസ്താൻ ആയുധം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് ആർമി ഇവിടെ നിന്ന് പോയെങ്കിൽ ആ ആയുധം ഒരു ഇരുനൂറ് കൊല്ലം മുന്നേ കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ ഈ ഇത്രയും വലിയ ഇന്ത്യനെ ഭരിക്കാൻ വേറെ ഒരു വിദേശ ശക്തി ഭൂമി വരില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ